ആ അതെ സർ ആർ റെജിസ്ട്രേഷൻ പറഞ്ഞോളൂ എന്താണ് പ്രശ്നം ഓക്കേ സർ ഓക്കേ സർ പറഞ്ഞോളൂ എന്താണ് പ്രശ്നം എന്താണ് ഓക്കേ സർ ഓക്കേ സർ സാറ് എന്നാ ചെയ്യുവാണ് സാറെന്നാ വലിയ ഒരു പുള്ളിയാണോ അതോ സാറിൻറ്റെ ഡീറ്റെയിൽസെല്ലാമൊന്ന് പറയാമോ ഓക്കേ സാർ ഓക്കേ സാർ ആ ഓക്കേ സാർ ആ ഓക്കേ സർ ഓക്കേ ഓക്കേ ഓക്കേ സാർ ഓക്കേ സാർ ഓ ഓ അതെ അതെ കേട്ടായിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ ഏരിയയുടെ പേരെന്തുവാണ് ആ കൂട്ടിക്കാനം ആ കൂട്ടിക്കാനം കൂട്ടിക്കാനം കുറെ നടക്കാറുണ്ട് നമ്മൾ കുറെ കേസ് വരാറുണ്ടല്ലോ റെക്കോഡ് കാണാറുണ്ട് ആ ആ ആ ഓ ഓക്കേ അപ്പോൾ ഇങ്ങനെ സാറ് ഇത് ഒരാൾ മതിയായിരിക്കുമല്ലോ ഇങ്ങനെ നിങ്ങൾക്ക് എന്താ ഇതിൽ നിന്നൊക്കെ ഒരാൾ മതിയായിരിക്കുമല്ലോ നമുക്ക് ഇപ്പോൾ ഓൾറെഡി കുറെ പേരിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആവശ്യം ഉണ്ട് ഇങ്ങനെ നോക്കേ അപ്പം നമ്മൾ അത്യാവശ്യം ആൾക്കാരെ അയച്ചിട്ടുണ്ട് ഇപ്പോൾ ആരേലും ഉണ്ടോന്ന് അന്വേഷിക്കട്ടെ ഇല്ലേ സാർന് എങ്ങനേലും ഒപ്പിച്ച് തരാം അപ്പോം കുഴപ്പമില്ല സാറ് ഗവർമെൻറ്റ് എംപ്ലോയീം കൂടിയാന്ന് പറയുന്നത് കൊണ്ട് സാർന് എന്തായാലും ചെയ്ത് തരും അത് ഉറപ്പില്ല പക്ഷേ അതിന്റെ കുറച്ച് പേപ്പറ് വർക്കൊക്കെ ഉണ്ട് സാറത് ക്ലിയർ ചെയ്യണം ആ സ്റ്റേഷൻലോട്ട് ഇപ്പം ഇപ്പം വന്നാൽ സാറൊരു സാറ് നാളെ നാളെ ഒരു ഉച്ച സമയത്ത് വരുമോ ഇന്ന് കുറച്ച് തിരക്കാണ് ഇന്നൊരു കേസൊണ്ടായിരുന്നു ഇന്നിപ്പോൾ സാറെന്നായിരുന്നു ആ കേസിന്റെ കാര്യം മറ്റേ ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയ കേസ് ഇവിടെ ആദ്യത്തെ ആ ഇപ്പം അതിന്റെ തിരക്കിലാണ് അതിന്റെ തിരക്കിലിപ്പോൾ എല്ലാവരും ഇട്ട് വട്ടം കറക്കിക്കുകയാണ് കുട്ടിക്കാനത്തെല്ലാ ഇവിടെ മറ്റേ നമ്മുടെ കോട്ടയത്തെ അപ്പോൾ അത് എല്ലാവരും നല്ല ഒരു വലിയ പുള്ളിയുടെ കൊച്ചാണ് അപ്പോൾ അതായത് കൊണ്ട് എല്ലാ പോലീസിനെയും ഇട്ട് പ്രെഷർ ചെയ്യിപ്പിക്കുകയാണ് അതുകൊണ്ട് കുറച്ചു പേര് പോയിട്ടുണ്ട് അപ്പോൾ അതിന്റെ തിരക്കിലാണ് ഇപ്പോൾ ആ ആ ഓക്കേ സാർ അപ്പോൾ അപ്പോൾ സാറ് സാറ് വരുമ്പോൾ സാറിൻറ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ എന്തൊക്കെയാണ് വീട്ടിന്റെ അകത്ത് എന്ന് എന്തൊക്കെ ഡീറ്റെയിൽസാ സാറിൻറ്റെ പേരിൽ സാറെന്നെ എല്ലാ അതിന്റെ പേര് സാറിന്റെ പേര് സാറിന്റെ ഒരു ആധാർ കാഡ് സാറിന്റെ എന്താ ഇങ്ങനെ ബെർത്ത് സെർട്ടിഫിക്കറ്റെല്ലാം കൊണ്ട് വരുക ഇന്ത്യൻ സിറ്റി ഇന്ത്യൻ സിറ്റിസൻസാണെന്ന് ഉറപ്പ് വരുത്താൻ പിന്നെ അല്ലാതെ വേറെ കാര്യങ്ങൾ ആ ആ റേഷൻ കാഡ് അത് കാഡൊക്കെ നിങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട് ഇന്ത്യയിൽ ഉള്ള ആളാണ് നിങ്ങളുടെ വീട് എവിടെ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് വീടിന്റെ അഡ്രസ്സ് ലൊക്കേഷൻ എത്ര എന്ന് പിന്നെ ആ ബാക്കിയുള്ളത് ഇവിടെ വന്നിട്ട് ആ എന്താ ഏട്ടാ എന്താണ് സാറേ ടിക്കറ്റ് ആ പോകുന്ന ടിക്കറ്റിന്റെ എന്ന് പോകുന്നു എന്ന് വരുന്നു അതൊക്കെ നിങ്ങൾ ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് തരിക പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഇവിടെ ഒരു ഫോമുണ്ട് അതി ഫില്ല് ചെയ്യുക ഇങ്ങനെ എത്ര എന്ന് പോകുന്നു എന്ന് തൊട്ട് എന്ന് വരെ പോകുന്നു എന്തുകൊണ്ടാ പോകുന്നത് എന്തൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ടെന്ന് വേണ്ട എങ്ങനെയാണ് സംഭവം വീട്ടിൽ കുറെ ജ്വൽസും ഇതുമുണ്ട് വില കൂടിയത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചോദിച്ച് വരുന്നത് എന്നുള്ള ഒരു രീതിക്ക് നിങ്ങൾ മെസ്സേജ് അയക്കാൻ മെസ്സേജ് അയക്കണ്ട വന്നിട്ട് ഇങ്ങനെ ഡീറ്റെയിൽസ് തരിക നമ്മൾക്ക് ഓക്കേ സാർ ഓക്കേ സാർ എന്നാൽ സാറ് നാളെ ഉച്ചയ്ക്ക് വന്നാൽ മതി വീട്ടിലുള്ളവർക്ക് വേണ്ട സാറ്പ്പം സാറ്ന്റെ പേരിൽ ഇതെല്ലാം ചെയ്യാൻ പോകുന്നത് അതായത് സാറ് സാറും സാറിന്റെ കുടുംബവും പോകുന്നുണ്ടെന്ന് എഴുതി തന്നാൽ മതി അത് മതി ഓക്കേ സാറെന്നാ വേറെ കോള് വരുവാണ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകാണ് ഓക്കേ സാർ താങ്ക് യൂ